ഹലോ പറ പറയൂ ആ എനിക്ക് കുറച്ച് സ്ഥലം നമ്മുടെ ആലപ്പുഴയിൽ വേണമായിരുന്നൊരു ഒരേക്കർ അപ്പം നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടോ നിങ്ങളുടെ പരിചയത്തിൽ നമുക്ക് ഹൃദയഭാഗത്ത് നമുക്ക് ഇച്ചിരി മാറിയൊരു ഉള്ളിലോട്ടാണെങ്കിലും മതി എനിക്ക് വലിയൊരു ആ എവിടെ ഹൃദയഭാഗത്തോ ആ ആ ഓ ഇ വീ ജേ ജങ്ഷൻ്റെ ഓ നമുക്ക് മനസ്സിലായി സ്ഥലം നമുക്ക് മനസ്സിലായി അപ്പം അവിടെനമുക്ക് അവിടേക്കുള്ള വഴി എവിടെയായിട്ടാണ് കറക്റ്റ് സ്ഥലം ലൊക്കേഷൻ വരുന്നത് ഓഹോ ഓ ഓ ഓക്കേ ഓ നമുക്ക് അത് വീട് വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവിടെ വെള്ളം കയറോ അങ്ങനെയെന്തെങ്കിലും ബുദ്ധിമുട്ടെന്തെങ്കിലുമുണ്ടോ ആണല്ലേ ഓട മറ്റുള്ളവർ മാലിന്യങ്ങൾ അങ്ങനെ വല്ലതുമുണ്ടോ അല്ലെങ്കിൽ അതിനടുത്ത് വല്ലതും ആണല്ലേ അപ്പം സെൻറ്റിനെത്രയാന്നാണ് പറഞ്ഞത് സെൻറ്റിനവർ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷമാണല്ലേ അപ്പം എത്ര സെൻറ്റുണ്ട് ആ പറഞ്ഞോ രണ്ടേക്കറുമല്ല അപ്പം ഇരുപത്തഞ്ച് ലക്ഷമാണത് പ്രതീക്ഷിക്കുന്നത് ആണല്ലേ ഓ അപ്പം ഞാനൊരു നാളെ വൈകുന്നേരം ഒരു മൂന്നു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ആലപ്പുഴയിൽ എത്താം അപ്പം നമുക്ക് ഓണറുമായിട്ട് എനിക്ക് ഓണറിനേ നേരിട്ട് കാണാമല്ലോ അല്ലേ നമുക്ക് ഓ ഓക്കേ എന്നാൽ നമുക്കൊരു ഒന്ന് രണ്ട് സ്ഥലം കൂടി നോക്കി വെക്കുകയാണെങ്കിൽ ഒറ്റത്തവണ തന്നെ വന്ന് എല്ലാം കാണാമല്ലൊ നമുക്ക് ആലപ്പുഴയിൽത്തന്നെ എങ്കിൽ ശരി ഞാൻ വൈകുന്നേരം വരാം